സ്റ്റാമ്പുൾ അല്ലെങ്കിൽ നാണയങ്ങൾ കല്ലുകൾ ഇവയൊക്കെയാണ് ഞാൻ ശേഖരിക്കുന്നത് അത് സ്റ്റാമ്പ് ഒരു ഒരു വലിയ ഒരു ആൽബവുമുണ്ടാക്കിയിട്ട് അതിനകത്താണ് ശേഖരിക്കുന്നത് പഴയകാല സ്റ്റാമ്പുകളെല്ലാം ഓരോ ഓരോ സെക്ഷനായിട്ടാണ് സൂക്ഷിക്കുന്നത് ഓരോ രാജ്യത്തിൻ്റെത് ഓരോ സ്റ്റാമ്പുകളായിട്ട് ഓരോ ഓരോ ഇതായിട്ട് ഓരോ ആൽബമായിട്ട് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ നാണയങ്ങളെ ആണെങ്കിൽ തന്നെയും പല രാജ്യത്തിന്റെ നാണയങ്ങൾ അത് ഓരോന്നും ഓരോ ഇതായിട്ട് അതിന് വിശദീകരണം കൊടുത്തിട്ട് അങ്ങനെ പ്രതേകമായിട്ടും മറ്റുള്ളവർക്ക് മനസിലാവുന്ന രീതിയിൽ നാണയത്തിന്റെ സവിശേഷത എത്രയാണ് നാണയം അത് ഏത് രാജ്യത്തിന്റെ ആണെന്നും ഓരോന്നിനും ഓരോ സവിശേഷതകൾ കൊടുത്തിട്ട് ഓരോ ആൽബമാക്കിയിട്ടാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ നമ്മൾ ഇപ്പം ഒരു എക്സിബിഷന് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ തന്നെയും നമുക്ക് അത് എളുപ്പമാണ് മറ്റുള്ളവർക്ക് ആണെങ്കിലും നോക്കിയാൽ തന്നെ അതൊക്കെ ഇന്ന രാജ്യത്തിന്റെ നാണയമാണ് ഇന്ന രാജ്യത്തിന്റെ സ്റ്റാമ്പാണ് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനെ കുറിച്ച് കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്താണ് ഓരോന്നും വിവരിച്ചേക്കുന്നത് മറ്റൊരാൾക്ക് തന്നെ മനസ്സിലാവാത്ത രാജ്യത്തിന്റെ സ്റ്റാമ്പ് ആണ് അല്ലങ്കിൽ നാണയമാണെങ്കിലും കല്ലുകളാണെങ്കിലും നമുക്ക് അത് പ്രെഷ്യസായിട്ടുള്ള അത് നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് നല്ല വിശദീകരിച്ച് വിശദീകരണം കൊടത്തിട്ടാണ് നമുക്ക് അതിനകത്ത് അപ്പോൾ ഏതൊരാൾക്കായലും വായിച്ചാൽ അത് അത് മനസ്സിലാവും ഇത് എവിടത്തെയാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് എത്ര നാളത്തെ മുൻപേയാണ് ഉള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ഡാറ്റബേയ്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒരു ആൽബമാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് കൂടുതൽ എളുപ്പമാകാനും അത് കൂടുതൽ ഉപയോഗപ്രദമാവാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്